മീൻ നല്ല പിന്നെ മത്തിയുണ്ട് ആ അയല ഉണ്ട് കരിമീനുണ്ട് കൊഞ്ചുണ്ട് എല്ലാമുണ്ട് കരിമീൻ വേണം ആ ചേച്ചി നാടൻ കരിമീൻ ആ ആ അതേ ചേച്ചി നാടൻ കരിമീനുണ്ട് അഞ്ഞൂറ് രൂപയാണ് വിലയാട്ടോ പക്ഷേ മറ്റേ ആന്ധ്രാ കരിമീനുണ്ട് അതിന് നാന്നൂറ് രൂപയേ ഉള്ളൂ ചേച്ചിക്ക് ഏതാണ് വേണ്ടത് മതിയോ ആ ആ കായൽലെ ആണേ ആ നമ്മുടെ കായൽലെ തന്നെയാണ് അഞ്ഞൂറ് രൂപ വിലയാണ് കേട്ടോ ഒരു കിലോയ്ക്ക് ആ ആ ശരി ശരി ആ ആണോ വലുത് വേണോ ചേച്ചി വലുത് വേണോ ആണോ എന്നാൽ ആ ആ ആ ആ ആ അത് ശരിയാണ് ആ എന്നാൽ ചേച്ചി ഞാൻ ചെറുത് നോക്കിയേ വീട്ടിലേക്കൊരു ഏഴ് എണ്ണം ചെറുതാണെങ്കിൽ ഒരു ഏഴ് എട്ടെണ്ണമൊക്കെ കിട്ടും രണ്ട് കിലോയാ ആ എന്നാൽ ചെറുത് നോക്കി ചേച്ചി ഒരു പതിനാറ് കിലോ പതിനാറെണ്ണം വരത്തക്ക രീതീൽ രണ്ട് കിലോ തരുമോ ആ ആ വൃത്തിയാക്കി തരും വൃത്തിയാക്കി തരും ആ ആ എപ്പോഴത്തെ ചേച്ചിക്ക് എപ്പോഴത്തേക്കാണ് വേണ്ടത് ആണല്ലേ ആ എന്നാൽ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ ഇല്ല ഇല്ല ഇല്ല ചാർജൊന്നും ഇല്ല ആ ഇതിൽ തന്നെ പോവും ആ ആ വീട്ടിൽ പോവുന്നതിന് ചേച്ചി ഞങ്ങളുടെ ഡെലിവറി ബോയ് വരുമ്പോഴ്ത്തേക്കും ഒരു അൻപത് രൂപ കൊടുക്കണം ആ ആ ആ ആ അതെ അതെ അതെ ആ ആ

ആ രാഹുൽ എന്നാണ് പേര് ആ ഈ ചേച്ചി ഈ വിളിച്ച നമ്പര് തന്നെയാണ് ഈ ഈ നമ്പരാണോ ചേച്ചീടെ നമ്പര് ആ ആ അപ്പോൾ ഈ നമ്പര് കൊടുത്ത് വിട്ടേക്കാവേ ആ അപ്പോൾ ആൾ വിളിക്കുമ്പോൾ ചേച്ചി എവിടെയാണ് ചേച്ചി താമസിക്കുന്നത് ആണല്ലേ ആ ആ ചേച്ചി ചമ്പക്കൊളത്തുന്നേ ചമ്പക്കൊളത്ത് നിന്ന് അവിടുത്തെ ആ ഇങ്ങോട്ട് കൊടുപ്പുന്നേലോട്ടിറങ്ങുന്ന ആ റോഡില്ലേ അവിടെ വരുമ്പോഴ്ത്തേക്കും വിളിക്കും കേട്ടോ അപ്പോൾ ചേച്ചി ആ കാത്ത് ആ സ്ഥലം പറഞ്ഞ് കൊടുത്താൽ മതിയേ ആ ശരി ആ ഓക്കേ